സ്കൂളിൽ ചിത്രരചന പരിചലനം ചെറുതായിട്ട് നമ്മൾ എന്തായാലും നമ്മളെ ബുക്കിലക്കെ ജസ്റ്റ് ഡ്രോയിങ്ങിനൊക്കെ നമ്മൾ ചെയ്യും അത് ചെയ്തു ചെയ്തു വന്നു സ്കൂളിൽ ചെന്ന് ഷാർപ്പാവും എന്നു വച്ചാൽ ചിത്രരചനാ മത്സരങ്ങൾ അത് വിജയിക്കുന്നവർക്ക് ട്രോഫി അതേകണ പൈസ അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ ഇപ്പോൾ ഗാന്ധിജിയുടെ അതുതന്നെ പരിസ്ഥിതി പരിസ്ഥിതി ദിന ചിത്രരചന പിന്നെ ഗാന്ധി ക്വിസ് സഭ അതിൻ്റെ ചിത്രരചന അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ചിത്ര രചനയുണ്ട് അപ്പോൾ സ്കൂളിൽ നമുക്ക് വളരെ പ്രചോദനമാണ് ഇപ്പോൾ ഈ ചിത്രരചന നമുക്ക് കൂടുതൽ നമ്മൾ ഇമ്പാ ഇങ്ങനെ വരച്ചാൽ പ്രൈസല്ലെ കിട്ടുന്നത് അപ്പം ആ ഒരു ഇത് കുഞ്ഞ് മനസിനെ പ്രൈസ് കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മൾ ആ കഴിവിനെ നമ്മൾ കുറച്ചു കൂടെ ഷാർപ്പ് ചെയ്യും സ്ക്കൂളിൽ ചെന്നു ആ ചിത്രരചന ഒന്നു കൂടെ ഷാർപ്പ് ചെയ്തു നമ്മൾ അതിനെ നല്ല വൃത്തിക്ക് വരച്ചു അതിൻ്റെ എന്താണോ അതിൻ്റെ ഫ്ലോട്ട് അതും നമുക്ക് മനസിലായി സ്കൂളിൽ എന്താണോ പരിസ്ഥിതി ദിന പഠിപ്പിക്കുന്നത് ബന്ധപ്പെട്ട് അപ്പോൾ അത് നമ്മൾ മനസിലായിട്ട് അതിന് അനുസരിച്ച് വരച്ചു അങ്ങനെയാണ് നമ്മൾ സ്ക്കൂളിൽ ഇതാണ് അപ്പോൾ അതു നമുക്ക് ട്രോഫി എടുത്ത് തരുന്നതു കൊണ്ട് ചിലപ്പോൾ ക്യാഷ് അവാർഡ് ആയിരിക്കാം അതൊക്കെ തരുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റാണ് അപ്പം സ്കൂളുകാർ നമ്മളെ ആ കഴിവിനെ മെച്ചപ്പെടുത്തുക അത് കുറച്ചും കൂടെ ഷാർപ്പ് ചെയ്തു നമ്മൾ ആ ആ കഴിവിനെ കുറച്ചു കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ